ആ എനിക്ക് കുറച്ച് ഞാൻ ഇപ്പോൾ മലയാളം പി എച്ച് ഡി എടുക്കാൻ വേണ്ടീട്ടാണ് അപ്പോൾ എനിക്ക് കിട്ടുവാന്നെങ്കിൽ സബ്ജെക്റ്റ് മലയാളം കവികളും അവരുടെ കുറച്ച് ബുക്സും ആണ് റെഫറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിന്റെയീ കുറച്ച് ആ കുറച്ച് ബുക്ക്സ് വേണമായിരുന്നു അപ്പോൾ ഞാൻ എനിക്കിവിടെ ഏതൊക്കെയാ എവിടെയൊക്കെ ഇരിക്കണമെന്ന് അറിയില്ല ഞാൻ ഇവിടെ ആദ്യമായിട്ടാ വരുന്നത് ആ എനിക്ക് ഞാൻ പറയാം കമലാ സുര കമലാ സുരയ്യേൻ്റെ ബുക്ക്സ് വേണം പിന്നെ കുറച്ച് വേറെ എണ്ണം എനിക്ക് വേണം കുമാരനാശാൻ്റെ വീണപൂവാണ് ഫസ്റ്റ് വേണ്ടത്

കുമാരനാശാൻ്റെ വീണപൂവ് അത് ഏത് സെക്ഷനിലായിരിക്കും ലൈക്ക് എക്സ്പെൻസീവ് ആയിരിക്കുമോ എനിക്ക് കുറച്ച് ബഡ്ജറ്റേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒരു അഞ്ച് ബുക്ക്സ് വേണമായിരുന്നു എനിക്ക് ആ ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കുറച്ച് ബുക്സ് അതായത് രാമാനുജന് പറ്റിയിട്ടുള്ള കുറച്ച് ബുക്ക്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അദ്ദേഹം എഴുതിയതല്ല അതായത് ആദ്ധ്യാത്മ രാമായണമോ മഹാഭാരതമോ അദ്ദേഹം അങ്ങനത്തെ കൃതികളല്ലേ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ അയാളെ പറ്റിയിട്ടുള്ള കുറച്ച് ബുക്ക്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു മ് മ് പിന്നെ ഒ എൻ വി കുറുപ്പിൻ്റെ കുറച്ച് ബുക്ക്സ് വേണമായിരുന്നു അതും ജ്ഞാനപീഠം കിട്ടിയ നെറ്റിയിൽ പൂവുള്ള ദൂരെ ദൂരെ അങ്ങനത്തെ കിട്ടിയേക്കുന്ന കുറച്ച് ബുക്സൊക്കെയില്ലേ

ആ അതുപോലത്തെ കുറച്ച് വേണം പിന്നെ ആ പിന്നെ സുഗതകുമാരിയുടെ രാധ ഇവിടെ അമ്പലമണി പിന്നെ അങ്ങനത്തെ കുറച്ച് ബുക്ക്സ് വേണമായിരുന്നു ആ ഏറ്റവും മേജറായിട്ട് വേണ്ടത് കമലാ സുരയ്യേൻ്റെ നീർമാതളം പൂത്തകാലം

പിന്നെ ഒരു തിരക്കഥേൻ്റെ തിരകഥേൻ്റെ ഒരു ബുക്കാണ് വേണ്ടത് കേട്ടോ അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പോക്കു വെയിലെന്ന് പറഞ്ഞിട്ടൊരു ഒരു തിയട്രിക്കലായിട്ടൊരു സംഭവം ഉണ്ട് അതിൻ്റെ ഒര് ബുക്ക് ഇവിടെ മാത്രമേ കിട്ടുകയുളളുവെന്ന് പറഞ്ഞു ഞാനിവിടെ മൊത്തം അന്വേഷിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ വില്ലേജ് ഓഫീസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ഇത്രയും എന്ന് പറഞ്ഞു ആണോ ആ ആ എനിക്ക് ഇത് ഇത്രയും ഇപ്പോൾ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും കുറവൊന്ന് കിട്ടാൻ ചാൻസ് എന്തെങ്കിലും ആ അല്ല വീണ പൂവിൻ്റെ സെക്കൻഡ് എഡിഷൻ ആയിരുന്നു ഞാൻ മറ്റേ ലൈബ്രറിയിൽ നമ്മുടെ ടൗൺ ഹാളിൻ്റെ അവിടുത്തെ ലൈബ്രറി കണ്ടത് ഫസ്റ്റ് എഡിഷൻ കിട്ടാൻ വല്ല വഴിയും ഫസ്റ്റ് പ്രിന്റിവിടെയുണ്ടാവുമോ അതാകുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആരിക്കുമെന്ന് ആണോ ആ എനിക്ക് ഫസ്റ്റ് പ്രിൻറ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കാരണം അത് കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകുമല്ലോ ആമുഖമായാലും ആ ആ ശരി മ് മ് ആ റേറ്റിൽ വരുമല്ലേ പിന്നെ ഞാനിപ്പോൾ കവി കവിതേൻ്റെ ഇത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും റിസേർച്ചിന് വന്നാലും ഇവിടെ തന്നെ വന്നാൽ മലയാളത്തിൻ്റെതായിട്ടുള്ള എല്ലാ എല്ലാ സാഹിത്യ സാധനങ്ങളും ഉണ്ടാവില്ലേ ഇവിടെ ആ ആ അത് അറിയാൻ വേണ്ടീട്ടായിരുന്നു കുറേ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഇവിടെ വേറെ ലൈബ്രറിയിലൊന്നും കാണുന്നില്ല ബുക്ക്സൊന്നും ആ ആ ഓ ആ ആ ശരി ഞാൻ പൈസ അയച്ചോളാം